വീട് പണി കഴിഞ്ഞപ്പം തന്നെ വീടിൻ്റെ ഒരു ശോഭ ഉണ്ടാകണമെങ്കിൽ മുറ്റത്ത് പൂച്ചെടി വളരണമെന്നുള്ള ആശയുണ്ടായി ഭാര്യയാണ് അതിനകത്ത് വിദഗ്ദ്ധ ഞാനും സഹായിക്കും അത്രേ ഉള്ളു പക്ഷേ നട്ട് വളർന്ന് നട്ട് കഴിയുമ്പോൾ ഓരോ മുകുളവും ഓരോ കായും പൂവും ആയി വരുന്തോറും മനസ്സിന് കുളിർമ്മ തരുന്നു അപ്പോൾ പിന്നെ കൂടുതൽ ചെടി എവിടെ ഒക്കെ കണ്ടെത്തുന്നുവോ പോകുന്ന വഴികളിലൊക്കെ ഓ ചെന്നില്ലേ ചെല്ലുന്ന വീടുകളിൽ നിന്നും കാണാൻ കൊള്ളാവുന്ന നല്ല പൂക്കള് കാണുമ്പോൾ അതെല്ലാം അവിടുന്നെല്ലാം ചോദിച്ച് വാങ്ങി കൊണ്ട് വന്ന് ഭാര്യയെ ഏൽപ്പിക്കും അവള് നടും ഞാൻ നനയ്ക്കും അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്ത് പുല്ലൊക്കെ കളകളൊക്കെ കളഞ്ഞ് നന്നായിട്ട് വളർത്തി ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വേനൽക്കാലമായത് കൊണ്ട് അതിനെ ശരിക്കും രണ്ട് നേരം തന്നെ നനയ്ച്ചാലേ നല്ല പൂവും ഉണ്ടാവുകയുള്ളു അത് നിലനിൽക്കണമെങ്കിൽ അതുപോലെ തന്നെ കീടനാശിനികളും ചേർക്കണം കീടങ്ങള് നശിപ്പിക്കാതേയും നോക്കേണ്ടതുണ്ട് അങ്ങനെ മുറ്റത്തെ മുല്ല സൗരഭ്യം പുലർത്തും മാത്രമല്ല അത് പൂ ആ പൂക്കളൊക്കെ വന്ന് ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് കൂടുതല് മനസ്സ് മനസ്സാ മനസ്സ് സന്തോഷം ഉണ്ടാകും